ഹലൊ ഹലോ ഹലോ ഇത് ടെമ്പിളിനടുത്തുള്ള ഷോപ്പല്ലെ ഞങ്ങൾ ഗൂഗിള് വഴി എടുത്തതാണ് ഞങ്ങൾ ഇപ്പം ടെമ്പിൾലേക്ക് ഒരു പത്ത് പേര് വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഫുഡ്ഡ് വേണമായിരുന്നു ഞങ്ങൾ പത്ത് പേര് ആ അതെ വെജ്ജാണ് വെജ്ജ് ഞങ്ങൾ എല്ലാവരും വെജ്ജാണ്

ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുവാണ് അപ്പം അവിടെ അധികം ആൾക്കാരുണ്ടൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പറ്റുമോ ആ പിന്നെ ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഇപ്പം എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്

ആ ഇല്ല ഇത് മതി ഞങ്ങൾക്ക് മസാല ദോശയും ചപ്പാത്തിയും വേണം ഓക്കെ ഞങ്ങൾ അപ്പം ഫണ്ട് ആ അങ്ങനെ ചൂസ്സ് ചെയ്യാം കാരണം ഇപ്പം എല്ലാവരുടേയും കൂടെ ഒന്ന് ചൂസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ വന്നിട്ട് ഞങ്ങൾ ഓഡ്റ് ചെയ്തോളാം

ഓക്കെ അപ്പം അടുത്താണ് ടെമ്പിൾ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് അധികം സമയമില്ല എല്ലാം ഫുഡൊക്കെ പ്രിപയർ ആ രിക്കണം ഞങ്ങൾക്ക് അധികം സമയം ഇല്സ സ്പെൻ്റ് ചെയ്യാൻ നിൽക്കില്ല ആ ഓക്കെ ഫൈൻ